ഇഷ്ടമുള്ളൊരു സിനിമേനെപ്പറ്റി കുറച്ചു നേരം സംസാരിക്കുമോ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ ഷാരൂഖാൻ അഭിനയിച്ച ദിൽ സേഎന്നു പറയണ ഒരു സിനിമയാണ് അതു തന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു സിനിമയായിരുന്നു സാധാരണ സിനിമയെക്കാളും ഒരു കോമഡി റൊമാൻസ് ഇതു നല്ലൊരു ഫീൽ തന്നൊരു സിനിമയാണ് ദിൽ സേ ഞാനെൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണതു കണ്ടത് അതിൽ ഷാറുഖാൻ ഓൾ ഇന്ത്യ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണ് കഥ അങ്ങു പോകുന്ന അതിൽ ചെയ്യ ചെയ്യുകയെന്നു പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പം അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഫേവറേറ്റായിരുന്നു ആ പാട്ട് മനീഷ കൊയിരാള അതിലുണ്ട് പ്രീതി സിൻറ്റ അതിലുണ്ട് അതിൽ മനീഷ കൊയിരാളയുടെ പുറകെ നടന്നു സ്നേഹിക്കുന്ന ആ സീനൊക്കെയാണെന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരുപാട് ഞാൻ സിനിമ രണ്ടും മൂന്നും പ്രാവശ്യം കണ്ടു അതിലെ ചെയ്യ ചെയ്യാ എന്ന പാട്ടും ദിൽസേ രേ എന്ന സോങ്ങും എന്നെ ഒരുപാട് ടച്ച് ചെയ്തു ഓവറോൾ ഷാറുഖാൻ്റെ ആക്ടിങ്ങ് ആറ്റിട്യൂട് എന്തു പറയണമെന്നെനിക്കറിഞ്ഞു കൂടാ ക്ലൈമാക്സൊക്കെ വളരെ സങ്കടമായിരുന്നു അതു കാണുമ്പോൾ എനിക്ക് ആ സിനിമ തന്ന ഒരു ഫീൽ വേറൊരു സിനിമയും തന്നിട്ടില്ല അത്രത്തോളം എന്നെ പിടിച്ചിരുത്തിയ ഒരു സിനിമയാണ് ഞാൻ മൂന്നും നാലും പ്രാവശ്യം ആ സിനിമ കാണും പണ്ടൊക്കെ ഒരു മാസത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ആ സിനിമ കാണുമ്പം എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ടച്ച് ചെയ്ത ഒരു എൻ്റെ ഒരു മനസ്സിലെ എനിക്കെപ്പോഴും പെട്ടെന്നു ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ ഈ ദിൽസേയെന്നു പറഞ്ഞ ഷാറുഖാൻ്റെ സിനിമയാണ്